ഞാൻ പിന്നെ ജോലി സമയത്ത് ഞാൻ കുറച്ച് കാലം ഈ സപ്ലൈ കോയിൽ പോയി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിങ്ങനെ കിറ്റ് പോലെയാക്കലുണ്ടായിരുന്നു കുറെ കാലം മുമ്പാണ് ഈ ഓണത്തിനൊക്കെ നമ്മൾ കിറ്റ് ആക്കി കൊടുക്കുന്നൊരു സമ്പ്രദായം ഉണ്ട് ഓരോ കിലോ അര കിലോ എല്ലെ എല്ലാം വരണം എന്തൊക്കെ ഐറ്റംസ് അവർ ലിസ്റ്റ് ചെയ്തു തരുന്നോ അതൊക്കെ കിറ്റ് ഓണ കിറ്റ് പോലത്തെ ഒരിതിൽ നമ്മൾ ഡ്രോയിൽ വെക്കാനാണ് ഒരു പ്രാവിശ്യം ഞാൻ ഇങ്ങനെ കിറ്റാക്കി എല്ലം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആണ് സംഭവം മനസ്സിലാകുന്നത് ഞാൻ പിന്നെ പഞ്ചസാരയും ചെറുപയറും വെക്കാൻ മറന്നു പോയി ഗോ ഡൗണിലുണ്ടായിരുന്നു ഞാൻ വെക്കാൻ മറന്നുപോയി ഭയങ്കര ഇതായിരുന്നു എനിക്ക് എന്താ ചെയ്യുക അത് അത്രയും കിറ്റ് നമ്മൾ നൂറ്റി അൻപത് കിറ്റൊക്കെ ഒരു ദിവസം നിറയ്ക്കാറ് അത് പിന്നെയും എടുത്ത് ഓപ്പൺ ചെയ്ത് ഇതൊക്കെ അതിനകത്തോട്ട് വെക്കുക പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് അതിലിനി ഏതിലെങ്കിലും വെച്ചിട്ടുണ്ടോയെന്നറിയില്ല ഒന്നും അറിയില്ലാതെ അയ്യോ അന്ന് ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു പോയി നമ്മൾ നമ്മൾ വിചാരിക്കാതെ നടക്കുന്ന ഒരു സംഭവമാണ് എക്സ്പെക്റ്റഡല്ല അൺഎസ്പെക്റ്റഡായിട്ടു അന്ന് നല്ല ടെൻഷനായി പക്ഷെ അതൊക്കെ എങ്ങനെയൊക്കെയോ കൈകാര്യം ചെയ്തു നമ്മൾ അവരോട് പറഞ്ഞ് അവരും റെഡിയാക്കി തന്നു